എനിക്ക് പാട്ട് കേൾക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട് പല പാട്ടുകളും അതിപ്പോൾ ഓരോ മൂഡിന് അനുസരിച്ചൊക്കെയാണ് ഞാൻ പാട്ടുകൾ കേൾക്കാറ് കൂടുതലും മെലഡി നമ്മളെ പാട്ടിലേക്ക് പിടിച്ച് ലയിക്കുന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെയാണ് കേൾക്കാറ് പിന്നെ നമ്മള് പല ഉത്സവങ്ങള് ഡാൻസ് അങ്ങനെ ആ ഒരു മൂഡിൽ ആണെങ്കിൽ മാത്രമാണ് നല്ല ഡാൻസ് കളിക്കാൻ പറ്റുക ഡി ജെ പോലുള്ള പാട്ടുകളൊക്കെ കേൾക്കാറുള്ളത് അധികവും വൈകുന്നേരങ്ങളിലും അതേപോലെ കിടക്കുന്ന സമയത്തൊക്കെ മെലഡി പാട്ടുകളൊക്കെയാണ് കേൾക്കാറുള്ളത് യേശുദാസിൻ്റെയും അതേ പോലെ എ ആർ റഹ്മാൻ അതേപോലെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ പാട്ടുകളാണ് കൂടുതലും കേൾക്കാറുള്ളത് ഇവരുടെയൊക്കെ പാട്ടുകൾ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരുപാട് കേട്ടാലും കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് അത് ആ പാട്ടിൽ നമ്മൾ അങ്ങനെ ലയിച്ചു പോകും ഇപ്പോൾ പറഞ്ഞാൽ വേറൊരു ലോകത്തേക്ക് നമ്മുടെ ഈ ലോകത്ത് നിന്ന് വേറൊരു ലോകത്തേക്ക് നമ്മളിപ്പോ ഡി ഡിപ്രസ്സ്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ ആ ലോകത്തു നിന്ന് മറ്റൊരു ആ ഒരു പാട്ടിൻ്റെ ലോകത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു തരം പാട്ടുകളാണ് എല്ലാവരുടെയും ഇതിൽ ഡൗൺലോഡ് ചെയ്തു വെച്ച പാട്ടുകളാണ് കൂടുതലും ഇവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാറുണ്ട് ഓരോ ആൽബം ആയിട്ട് അത് അത് അല്ലെങ്കിൽ വെറൈറ്റി പാട്ടുകളൊക്കെ കേൾക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ യൂട്യൂബിലോ ഇല്ലെങ്കിൽ സ്പോട്ട്ഫയിലോ അങ്ങനെ ഉള്ള ആപ്പുകളിൽ ഒക്കെ കയറിയിട്ടും ഞാൻ പാട്ടുകള് കേൾക്കാറൊക്കെയുണ്ട് അതൊക്കെ ആ നമുക്ക് ആ ഒരു സമയത്ത് വളരെ എൻജോയ്മെന്റ് തരുന്ന വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്ന വളരെ മനോഹരമായ പാട്ടുകളാണ് ഇവരുടെയൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്